വയനാട് ജില്ലയിൽ ഇഷ്ടം പോലെ എന്താ പറയുക ശ്രദ്ധേയമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര ആകർഷണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് തിരുനെല്ലി ക്ഷേത്രം പിന്നെ കൃഷ്ണേരി ശിവക്ഷേത്രം പിന്നെ കൂടൽകടവ് ഡാം ബാണാസുര ഡാം പിന്നെ പടിഞ്ഞാറത്തറ അണക്കെട്ട് അങ്ങനെ കുറെ എന്താ പറയുക അണക്കെട്ടുകളും ഡാമുകളും പിന്നെ കുറെ കാണാനും കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക വനത്തിലൂടെ ഉള്ള യാത്ര പിന്നെ ഇങ്ങനെ ഓഫ് റോഡ് ഒക്കെ വരുന്ന കുറേ പേര് എന്താ പറയുക കുറെ ഇങ്ങനെ കാണാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ആകർഷണം തരുന്ന രീതിയിലുള്ള ഓരോ വഴികളും ഓരോ സഞ്ചാര രീതികളും പിന്നെ പിന്നെ ഇവിടെ തിരുനെല്ലി കുറെ പുഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പുഴ എന്താ പറയുക ഒരുപാട് ശ്രദ്ധേയമായ ഒരു സ്ഥലം തന്നെയാണ്